ഹലോ മരിയ സൂപ്പർ മാർക്കറ്റല്ലെ തോപ്രാംകുടിയിൽ നിന്ന് ആ എന്തൊക്കെയാണ് ഫ്രഷായിട്ടുള്ള സാധനങ്ങൾ പഴവർഗങ്ങൾ പച്ചക്കറികളൊക്കെ പച്ചക്കറികളുണ്ടോ മ്മ് മ്മ് സാമ്പാർ കൂട്ട് വേണം പഴങ്ങൾ ഞാലിപ്പൂവൻ പഴം ഏത്തക്ക ഞാലിപ്പൂവൻ രണ്ട് കിലോ ഏത്തക്ക രണ്ട് കിലോ എപ്പോൾ എത്തിക്കും ആ അതുമതി രണ്ട് കിറ്റ് വേണം

മ്മ് ആ ലിസ്റ്റ് പറയാം കൊണ്ടു തരണം മ്മ് കുറച്ച് സാധനങ്ങളും കൂടി വേണേ ആ അരി പയർ പരിപ്പ് ആ അങ്ങനെ ഉള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലെ മ്മ് ആ അരി പത്ത് കിലോ പയർ ആ കടല ഒരുകിലോ പരിപ്പ് അര കിലോ മതി ചെറുപയർ ഒരുകിലോ മ്മ് ഇന്ന് എന്തെങ്കിലും ഓഫറുണ്ടോ

കൊടുത്ത് വിടുക

സാമ്പാർ കൂട്ട്

ആ ഓഫർ ഉള്ളത് അനുസരിച്ച് കൊടുത്ത് വിടുക കേട്ടോ അമലായിലോട്ട് കൊടുത്തുവിടണേ

മ്മ് ആ പയർ ഒക്കെ ഫ്രഷാണോ മ്മ് അതും ഓരോ കിലോ കൊടുത്തു വിട്ടേരെ തക്കാളി ഉണ്ടോ മ്മ് ആ

മ്മ് വേണമെങ്കിൽ പറയാം മ്മ് ഇനി ലിസ്റ്റ് പറയണ്ടല്ലോ എല്ലാം കൊണ്ട് എത്തിക്കുകയില്ലേ

ഡിസ്കണ്ട് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ടുള്ള റേറ്റൊന്ന് പറയുമോ

മ്മ് മ്മ് സാധനം കൊണ്ടുവരുമ്പോൾ പൈസ കൊടുത്ത് വിട്ടേക്കാം ഓക്കേ മ്മ്